എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ട്ടപ്പെട്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജമ്മുകാശ്മീര് പോണംന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മഞ്ഞുവീഴ്ച്ചയും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ട്ടമാണ് അവിടുത്തെ ഹിമാചൽ പ്രദേശ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര താൽപ്പര്യമാണ് അവിടുത്തെ എന്താ പറയാ ആ മലനിരകൾ കാണാൻ തന്നെ നല്ല രസമുള്ള ഒരു അനുഭവമായിട്ടാണ് തോന്നിയത് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മണാലി ആ ഭാഗങ്ങളിലൊക്കെ പോയിട്ട് താമസിക്കാൻ ഭയങ്കര ഇഷ്ട്ടമാണ് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ താജ് മഹാല് താജ് മഹാൽന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാൻ നല്ല ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതും കാണാനെനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം എനിക്ക് കൂടുതലായിട്ടും താല്പര്യമുള്ളതിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ എല്ലാ എല്ലാ ജില്ലകളും കാണാൻ ഭയങ്കര ആഗ്രഹമാണ് അവടുത്തോരോ ആചാരങ്ങളും ഓരോ നമ്മുടെ ഓരോ ജില്ലയിലും വ്യത്യസ്തതരമായിട്ടുള്ള ഭാഷയും വ്യത്യസ്ഥതരമായിട്ടുള്ള ശൈലികളും ഒക്കെ എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് അനുഭവിച്ചറിയാൻ വേണ്ടീട്ട് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ എനിക്ക് നമ്മളിപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം പൂവാ വരെ പൂവാൻ വേണ്ടീട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഉള്ളത്